നീന്തൽ ഒരു വ്യായാമമാണ് ഏറോബിക് വ്യായാമങ്ങൾ പോലെ നീന്തൽ ഹൃദയാരോഗ്യത്തിന് ഫലപ്രദമാണ് നീന്തൽ ഹൃദയത്തെ കൂടുതൽ ശക്ത മാക്കുകയും ശ്വാസകോശത്തെ ഓക്സിജൻ ഉപയോഗപ്പെടുത്താൻ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നു ശരീരത്തിനും ഹൃദയത്തിനും മികച്ചൊരു വ്യായാമമാണ് നീന്തലെന്ന് പറയാം ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നീന്തുന്നത് നമ്മുടെ ശരീരത്തിലെ കലോറിയുടെ കലോറിയൊക്കെ കുറയ്ക്കുന്നതിന് സഹായിക്കും എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ആസ്മ പോലുള്ള രോഗങ്ങൾക്ക് നീന്തലെന്ന് പറയുന്നത് വളരെ അധികം ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നു അതായത് ഹൃദയത്തെ ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് ഈ നീന്തൽ ഭലപ്രദമായി ഫലപ്രദമാകുന്നുണ്ട്